ആ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടെ ഒരുമിച്ചു കൂടിയാൽ പിന്നെ പറയേണ്ട ഞങ്ങൾ ഈ മീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ മണ്ണുണ്ടി ഒരു ഡാം ഉണ്ട് അവിടെ പോവും പോവുമ്പോൾ ഞങ്ങൾ വിചാരിക്കും മനസ്സിൽ ആ ഏതെങ്കിലും ഒരു ചെറിയ മീനൊക്കെ ആയിരിക്കും കിട്ടുക എന്ന് എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ മീനിനെ പിടിക്കണം എന്നു പറഞ്ഞാൽ പിരാന്തായിരുന്നു ഒരു സെറ്റ് ആൾക്കാർ നിറച്ചും വല ആയിട്ട് ഒരു സൈഡിൽ ഉണ്ടാവും നമ്മളൊക്കെ ഇല്ലിക്കമ്പൊക്കെ വെട്ടി സെറ്റാക്കി ചൂണ്ട നൂലും കൊളുത്തുമൊക്കെ ഇട്ട് ഒരു സൈഡിലും മണ്ണിരനെയൊക്കെ പിടിച്ചു അങ്ങനെ ഇരിപ്പുണ്ടാവും ഭയങ്കര രസാണ് അതൊക്കെ എന്നിട്ട് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ മീനായിക്കോട്ടെ വലിയ മീനിനെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ നല്ല ക്ഷമ വേണം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്നു പറഞ്ഞാൽ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആയിക്കോട്ടെ മീൻ കിട്ടിയിരിക്കും നമുക്ക് ക്ഷമ ഇല്ലെങ്കിൽ പോയി നമ്മൾ ഒന്ന് ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് പൊക്കി നോക്കുകയാണെങ്കിൽ പോയി അയ്യോ മീൻ എന്താണ് കൊടുങ്ങാത്തതെന്ന് വിചരിച്ചു നിർത്തി പോവുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു നമ്മൾ നല്ല ക്ഷമയോട് കൂടി ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത മീൻ കിട്ടും നമ്മുടെ എല്ലാവരെ മനസ്സിലും എന്താണ് ഉണ്ടാവുക ഒരു നല്ല മീൻ കിട്ടണം ഒരു അര കിലോ ഒരു കിലോയ്ക്ക് അടുത്ത് വരുന്ന മീനൊക്കെ കിട്ടണമെന്ന് ആ രീതിയിൽ ആയിരിക്കും നമ്മൾ ഇടുക ഞങ്ങൾ വല ഇട്ടിട്ടായിക്കോട്ടെ ഞങ്ങൾക്ക് നല്ല വലിയ മീനിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പോലും വിചാരിക്കാത്ത മീനുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയ കാര്യമാണ് അതിപ്പം പിലോപ്പി ആയിക്കോട്ടെ നെട്ടർ ആയിക്കോട്ടെ ഇതിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് എന്തായിരിക്കും തോട്ടിലെ മീനല്ലേ ആ ചെറിയ ഏതെങ്കിലും മീൻ വന്നു വീഴുമായിരിക്കുമെന്ന് പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇതുപോലെത്തെ ഒക്കെയാണ് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്